ഹലോ ക്യാബ് ഏജൻസി അല്ലെ ഞാൻ ഇന്നലെ അതായത് കോഴിക്കോടുന്നൊരു എറണാകുളത്തേക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ ആ അതെ അതെ ഇന്നാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് എറണാകുളത്ത് എത്തിയത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാബ് അതായത് ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് കംപ്ലയിൻറ് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഒട്ടും വൃത്തിയുണ്ടായിരുന്നില്ല സീറ്റ് ഒക്കെ കീറി ആകെ നാശമായിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ അല്ലാണ്ട് നിങ്ങൾ വെറുതെ നമ്മളെ കൊണ്ടു പോകുന്നതല്ലല്ലോ അപ്പോൾ അതിൻ്റേതായ വൃത്തിയിലും വെടിപ്പിലും നിങ്ങൾ അത് വണ്ടി ആണെങ്കിൽ കൊണ്ടുപോകണ്ടേ അതുപോലെ തന്നെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് കാലമൊക്കെയാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ മാസ്ക് പോലും ധരിച്ചിട്ടില്ല അപ്പോൾ അയാൾക്കെങ്ങാനും കോവിഡ് നമ്മൾ കുട്ടികളൊക്കെയായിട്ട് പോകുന്നയല്ലേ അപ്പോൾ അങ്ങനെ അതായത് അങ്ങനെയൊരു മാനേഴ്സ് എങ്കിലും വേണ്ടേ അതായത് ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ക്യാബ് ഡ്രൈവറല്ലേ അപ്പോൾ നിങ്ങൾ അതെങ്കിലും അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി വിടണ്ടേ അപ്പോൾ നിങ്ങളുടേത് വളരെ മോശമാണ് ഞാൻ എനി എന്തായാലും നിങ്ങളുടേതിൽ ബുക്ക് ചെയ്യില്ല അപ്പം എനിക്ക് കാര്യം പറയണമെന്നുണ്ടായിരുന്നു കാരണം നമ്മളത്രയും പൈസ കൊടുത്തിട്ടാണല്ലോ ഇതിപ്പോൾ ചെയ്തത് അതായത് ഇത് ബുക്ക് ചെയ്തത് നമ്മളിവിടെവരെ എത്തിയത് അപ്പോൾ കാര്യം പറയണം എന്നുണ്ടായിരുന്നു ഓക്കേ